അന്ധവിശ്വാസത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഈ അന്ധവിശ്വാസ ത്തിലെ അന്ധവിശ്വാസത്തെക്കുറിച്ച് ചിന്തിയ്ക്കുന്ന ആളല്ല എനിയ്ക്കത് എനിയ്ക്ക് ഒരുപാടാനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അതിന് കൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഇവിടെ ഉള്ള കുറച്ചാൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വിശ്വസിയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് എനിയ്ക്കത് വിശ്വാസമില്ല എനിയ്ക്കനുഭവങ്ങളെന്തൊക്കേന്നു പറഞ്ഞാൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടതിനേക്കുറിച്ചക്കെ ഈ കൈനോട്ടക്കാരും അങ്ങനെ ഇങ്ങനെ ഒക്കെ ഉള്ള ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ നമുക്ക് സർപ്പശാപമുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നക്കെ പറഞ്ഞ് അവർ തകിട് അത് അങ്ങനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് നമ്മൾ കുറെ കാര്യങ്ങളക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് പേടിയാക്കും പേടിയാക്കുമ്പോൾ നമ്മളറിയാതെ അവർക്ക് പൈസ ഒക്കെ കൊടുക്കും അവരാ പൈസ ഒക്കെ കൊണ്ടുപോയി നമ്മളെ മുടി വേണം മുട്ട വേണം അത് വേണം ഇത് വേണം ഇങ്ങനൊക്കെ പറഞ്ഞ് അവർ തന്നെ തീർത്ത് തരാംന്ന് പറയും അത് നമുക്ക് തീർക്കാൻ പറ്റില്ല അവർക്ക് നമ്മൾ പൈസ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മക്കെന്തെങ്കിലുമൊക്കെ സംഭവിയ്ക്കും അങ്ങനെ ഒക്കെ അവർ പറഞ്ഞ് ഒരുപാട് പേടിയാക്കിയിട്ടുണ്ട് അങ്ങനെ പൈസകളക്കെ കൊടുത്തിട്ടുണ്ട് അന്നക്കെ അറിവില്ലാത്ത പ്രായത്തിൽ അങ്ങനയൊക്കെ ചെയ്തിട്ടൊണ്ട് ഇപ്പം എനിയ്ക്ക് അതിനോടൊന്നും ഒരു വിശ്വാസോം ഇല്ല എല്ലാം കള്ളത്തരങ്ങളാണ് പക്ഷേ വിശ്വസിയ്ക്കുന്ന ഒരുപാടാൾക്കാർ നമ്മടെ നാട്ടിലുണ്ട് നമ്മടെടേലൊരുപാട് പേരുണ്ട് എനിയ്ക്കില്ല അത്രേയെ ഉള്ളു